ആ അതെ പറ

ശ്വാസംമുട്ടൽ ജലദോഷം അങ്ങനെ എന്തേലുമുണ്ടോ ആ ആ ആ ഇപ്പോൾ ആ വൈറസ് ഇങ്ങനെ ആകുന്നുണ്ട് അലർജി എല്ലാവർക്കും ആകുന്നുണ്ട് ആ വീട്ടിൽ പാരസെറ്റാമോള് അങ്ങനെ എന്തേലുമുണ്ടോ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട് വല്ല തണുപ്പോ എന്തേലും ഉണ്ടായിരുന്നോ ആ ആ ആണോ ആ വീട്ടിൽ പാരസെറ്റാമോള് അങ്ങനെ എന്തെലും അത് ഒരു നല്ല പനി നല്ലതായിട്ടുണ്ടെങ്കിൽ എന്താ ഒരെണ്ണം ഒരു ഡോസ് ഫുള്ള് കഴിക്കുക ഇല്ല തല ചെറിയ തലവേദനയൊക്കെയാണെങ്കിൽ ഒരു ഹാഫ് കഴിക്കുക ഇല്ലെങ്കിൽ എന്താ ജലദോഷം ജലദോഷം എന്തെങ്കിലുമുണ്ടോ ആ ചുമയാണെങ്കിൽ എന്താ ഈ വിക്സിട്ടിട്ട് കുറച്ചൊന്നു ആവിപിടിക്കുക അങ്ങനെന്തേലും ചെയ്താൽമതി ആ കൂടുകയാണെങ്കിൽ നാളെ ആശുപത്രിയിലോട്ട് വന്നാൽമതി വേറെ നല്ല രീതീൽ പനിക്കുന്നുണ്ടോ നല്ലരീതിയിൽ ആ അപ്പോൾ നമ്മൾ നാളെ എന്തായാലും ആശുപത്രിയിൽ വരുന്നതായിരിക്കും കുറച്ചു ബെറ്ററ് എന്താന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ നാളെ വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് പറയുവാണേ കുറച്ചൂകു ടെ ബെറ്ററായിരിക്കും വീട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കെന്താ പറയാൻ പറ്റില്ലല്ലോ ആ രാത്രി നല്ല രീതിയ്ക്ക് പനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോകുന്നതായിരിക്കും നല്ലത് എത്രദിവസമായി രണ്ടു ദിവസമായില്ലേ

ആ അപ്പം ഇനി വെച്ചോണ്ടിരിക്കുന്ന അത്ര സേഫായിരിക്കില്ല ആശുപത്രി പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്

ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ